അതെ അതെ ഞാൻ ക്യാമറ ഉപയോഗിച്ച് റീലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാറില്ല ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രഫിയെന്നു പറയുന്നത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് ഫോട്ടോഗ്രഫി അതു പോലെ തന്നെ ആ ഈ റീലുകളെടുക്കാനായിട്ടും ചിത്രങ്ങൾ ഹ്രസ്വ ചിത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ടെനിക്കറിയില്ല കാരണം ഈ ഫോട്ടോഗ്രഫിയാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതെടുക്കുമ്പോഴത്തേനും വളരെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോട്ടോഗ്രഫി എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്ന ചിത്രങ്ങൾ പകർത്തുന്നതിൽ നിന്നും എത്ര വ്യത്യസ്തമാണിതെന്ന് ചോദിച്ചാൽ അയ്യോ ചിത്രം കൊണ്ടുദ്ദേശിക്കുന്നത് സിനിമയൊക്കെയാണെങ്കിൽ സിനിമേനെയൊക്ക അപേക്ഷിച്ചത് ഭയങ്കര വലിയ കോസ്റ്റ്ലിയായിട്ടുള്ള കാര്യമാണ് അത് ഒരാങ്കിളും ക്യാമറയ്ക്കോരോ ആങ്കിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് ഇതിൽ നിന്ന് ഈ സാധാരണ റീലുപയോഗിക്കാനും സാധാ സാധാ ഫോൺ ഉപയോഗി മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ സാധാ ഒരു ഡി എസ് എൽ ഡി ഡി എസ് എൽ ആർ ക്യാമറ ഉപയോഗിച്ചിതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് ഈ സിനിമ പോലെ പറ്റുന്നില്ല പറ്റത്തില്ല അതിനുള്ള ഈ സിനിമയിലൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ ക്യാമറാസും ഭയങ്കര കോസ്ലിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് കുറേ ടൂൾസുണ്ട് ഈ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ പല ടൂൾസുകളുണ്ട് ആ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പക്ഷെയെങ്കിൽ എന്നാലും ഇങ്ങനത്തതൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടും ഈ റീലെടുക്കുന്നവരും ഷോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഷോട്ട് ഫിലിംസ് എടുക്കുന്നവർ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ക്യാമറ അതല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെ ഈ സിനിമ പോലെ തന്നെ എടുക്കുന്നവരുമുണ്ട് ആ എടുക്കാനായിട്ട് അങ്ങനത്തെ അങ്ങനെ ടാലൻറ്റുള്ള അല്ലായ ഇതിലോട്ട് ഈ സിനിമ മേഖലയിലോട്ട് അല്ലെങ്കിൽ ഈ സിനിമയിലോട്ടല്ലെങ്കിലീ ഷൂട്ടിംഗിൻ്റെ മേഖലയിലോട്ട് ഒക്കെ താൽപ്പര്യം ഉള്ളവർക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എഫക്റ്റീവ് എന്നു പറഞ്ഞാൽ അപ്പോൾ ഭയങ്കരം അതിനോട് പേഷനുള്ള ആൾക്കാർക്ക് ആ അത് അവരെങ്ങനെയെങ്കിലുമതൊക്കെ ഉറപ്പിൽ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് വളരെ നല്ലൊരു കാര്യം ആയിട്ടാണ് ക്യാമറ ഉപയോഗിച്ച് അങ്ങനെ റീലൊന്നും ഞാനങ്ങനെ എടുക്കാറില്ല ചിത്രങ്ങൾ പകർത്തുന്നതിൽ നിന്നും വ്യത്യസ്തം തന്നെയാണ് ഈ ക്യാമറ ഉപയോഗിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ പിന്നീട് ഞാനങ്ങനെ റീലുകളൊക്കെ എടുത്തു കൊടുത്തിട്ട് കൂട്ടുകാർക്കൊക്കെ അങ്ങനെ റീലൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് റീലുകളൊക്കെ ഞാൻ ഞാ റീലുകളുണ്ടാക്കീട്ടുണ്ടത് ആ വളരെ നല്ല രീതിക്കൊന്നും അല്ല ഒരു സാധാ മൊബൈൽ ഫോണിൽ തന്നെ എട്ത്ത് എട്ക്കുന്നു എൻ്റെ സ എഡിറ്റിംഗ് സോഫ്റ്റ് വെയറിട്ട് എഡിറ്റ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഭയങ്കര നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഈ ഫോട്ടോഗ്രഫി വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ

ചെയ്യാനായിട്ട് പേഷനുള്ളവരത് നന്നാ നല്ല രീതിക്ക് തന്നെ അവർ ചെയ്യുകയും ചെയ്യും അവർക്കതൊക്കെ നല്ല ഫേ നല്ല രീതിക്ക് തന്നെ അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് പിന്നീട് ഈ സിനിമ മേഖലയിലുപയോഗിക്കുന്ന ഈ ചിത്രങ്ങളാണ് ഈ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കവൈലബിളല്ല അതൊക്കെ ഭയങ്കര പൈസ വേണം അത് ഭയങ്കര കോസ്ലിയാണ് അതൊന്നും നമുക്കെടുക്കാനോ അതൊക്കെ നമുക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ആ അതൊക്കെ ഭയങ്കരം പാടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും